ചരിത്രത്തിൽ ഇപ്പം നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ മറ്റേ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന നമ്മൾ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു നമ്മൾ കുറേ കാലം അവരുടെ കാൽച്ചുവട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അതായത് അവർ പറഞ്ഞതിനനുസരിച്ച് അതായത് അവരുടെ ഒരു അധീനതയിലായിരുന്നു നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത് അവർ പറയുന്നതുപോലെ കേൾക്കുക അവർ പറയുന്നതുപോലെ ജീവിക്കുക അതായത് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അപ്പം നമ്മളാദ്യമൊക്കെ ഭയങ്കര പോരാടിയിട്ടാണ് കിട്ടിയത് അതായത് നമുക്ക് നമ്മുടെ സ്ഥലം നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയത് ആ ബ്രിട്ടീഷ് ഭരണത്തിൽ ആ ബ്രിട്ടീഷ് ഭരണത്തിൽ നമ്മളേതായ നമ്മൾ ആ കാലത്തിൽ ജീവിച്ചവർക്കറിയാം അയിന്റെ വിഷമങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മളൊന്ന് അതായത് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നത് ആ കാലത്തൊക്കെയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അധീനതയിലായതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ചു അവരുടെ ചട്ടങ്ങൾക്കനുസരിച്ചായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്